നമ്മൾ പൂച്ചെടി വേനൽകാലത്ത് എന്ന് പറഞ്ഞാൽ വെയിൽ കൊള്ളുന്നതിന് നമ്മൾ ഇങ്ങനെ ഓല എല്ലാം കെട്ടും എന്നിട്ട് ചെടി നടും നട്ടിട്ട് ഇനി വെള്ളം ഒഴിക്കണം പിന്നെ ചാണകം പൊടി ഇടണം പിന്നെ അതിൽ പുതു വരാതെ നോക്കണം അതുപോലെ ഇങ്ങനെ മണ്ണ് ലൂസ് ആയിരിക്കണം നല്ല ടൈറ്റ് മണ്ണ് ആണെങ്കിൽ ചെടി വളരില്ല വേനൽക്കാലത്ത് ആയാണ് എങ്കിലും മഴക്കാലത്ത് ആണെങ്കിലും ചെടി വളരണമെങ്കിൽ നല്ല മണ്ണ് നല്ല പതം വരണം നല്ല ലൂസ് പൊടി പൊടി മണ്ണായിരിക്കണം ഇനി നമ്മൾ ചാണകം പൊടി കരി പൊടിച്ചിട്ട് എല്ലാം മണ്ണിന്റെ ഒക്കെ മിക്സ് ആക്കണം മിക്സ് ആക്കിയിട്ട് ഇടണം അപ്പോൾ മണ്ണ് നല്ല ലൂസ് ആവും അതുപോലെ റോസ് റോസിന്റെ ചെടിയാണെങ്കിലും അതെ നല്ല വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ ചട്ടിയിൽ നട്ടെങ്കിലെന്ന് അതിനെ നട്ടിട്ട് നമ്മൾ ഓല ഇങ്ങനെ വെയിൽ അടിക്കുന്ന ഭാഗത്ത് നിന്ന് മൂടും മൂടി വയ്ക്കും അങ്ങനെ ഇതിങ്ങനെ നട്ടിട്ട് ഒരാഴ്ച ആവുവോളം നമ്മൾ ഇനി നല്ല വെയിൽ കൊള്ളാതെ നോക്കും വെയിൽ കുറച്ചു കൊള്ളുന്നത് പോലെ വെള്ളം ഒഴിക്കണം രണ്ട് നേരം അങ്ങനെ വെയിൽ കുറച്ചു കൊണ്ടാൽ മതി നല്ലവണ്ണം കൊണ്ടെങ്കിൽ ചെടി തെക്കുന്നതിനെക്കാളും മുമ്പ് ചെടിക്ക് നല്ല വെള്ളം കൊണ്ട് വെയിൽ കൊണ്ടെങ്കിൽ ചെടി കരിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ ഓല മൂടുന്നത് ഓല മൂടും എന്നിട്ട് അതിൽ തിരി വരുന്നതാകുമ്പോൾ നമ്മൾ ആ ഓലനെ എടുക്കും എടുത്തിട്ട് മാറ്റും മാറ്റിയിട്ട് വെയിൽ കൊള്ളാനായിട്ട് ചെടി വയ്ക്കും അപ്പം അതിൽ പെട്ടെന്ന് റോസ് പിടിക്കും റോസ് ആണെങ്കിലും മുല്ലപ്പൂവും അതെ മുല്ലപ്പൂവിനും അങ്ങനെ തന്നെ നമ്മൾ മുല്ലപ്പൂവിൻ്റെ തൈ ഒരിക്കൽ പൂവായി കഴിഞ്ഞാൽ പിന്നെ അത് മുറിക്കണം മുറിച്ചിട്ട് വീണ്ടും വേറെ ഒരു പാത്രത്തിൽ നടി നടണം നട്ടിട്ട് അത് നട്ടിട്ട് ആകുമ്പോഴതിന് അതിന് വെയിൽ കൊള്ളാൻ പാടില്ല വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഓല മൂടുന്നത് മൂടിയിട്ട് വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കാൻ പാടില്ല വലിയ വലിയ പൈപ്പിലെല്ലാം വെള്ളം പിടിക്കാൻ പാടില്ല ചെറുങ്ങനെ ചെറിയ പൈപ്പ് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ ആക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മൂടിയിട്ട് വയ്ക്കുക രാവിലെ അതുപോലെ വെള്ളം വന്നിട്ട് ഓല മൂടിയിട്ട് വയ്ക്കുക വെകുന്നേരം ഓല എടുത്ത് മാറ്റുക ഓല എടുത്തു മാറ്റിയിട്ട് രാത്രിയാകുമ്പോൾ ഓല വയ്ക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പോൾ രാവിലെ വീണ്ടും വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഓല മൂടണം അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും എന്ത് പൂവാണെങ്കിലും അങ്ങനെ അങ്ങനെ ഒരാഴ്ച്ചകാലം അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഒരാഴ്ച ആകുമ്പോൾ അതിന് അത് തിരി ഇങ്ങനെ വരും തിരി വരാൻ തുടങ്ങും തീർത്തിട്ട് അത് തീർത്തിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് ആ ഓല ആവശ്യമില്ല ഓല മാറ്റാം പിന്നെ ഓല വേണമെന്നില്ല തീർത്തെങ്കിൽ തീർത്തിട്ട് രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് അതിൽ മുല്ലപ്പൂ പിടിക്കും മുല്ലപ്പൂ പിടിച്ചാൽ പൂ പറിച്ച് കൊടുക്കണം പൂ പറിച്ചിട്ട് ആ കാ പൂ വരുന്ന സമയമെല്ലാം കഴിഞ്ഞിട്ട് ആയാൽ പിന്നെ പൂ ആക്കുന്നത് നിന്നു എന്ന് ആകുമ്പോൾ അതിനെ കട്ട് ആക്കണം പൂ പിടിച്ച സ്ഥലം എല്ലാം കട്ട് ആക്കിയിട്ട് എടുക്കണം പിന്നെ വീണ്ടും തേക്കും വീണ്ടും തീർത്തിട്ടാണ് പൂ പിടിക്കുന്നത് അപ്പോൾ ചെടിയെല്ലാം നടുന്നത് അങ്ങനെയാണ് ഒരു പ്രാവശ്യം നട്ടെങ്കിൽ അതിനെ അതിൻ്റെ സമയവും പ്രായം അതിൽ പൂ പിടിച്ചിട്ട് അതിൽ കായാകുന്ന സമയമാകുമ്പോൾ നമ്മൾ അത് മുറിച്ച് മാറ്റണം മുറിച്ച് മാറ്റിയിട്ട് വേറൊരു ചട്ടിയിൽ അതിൻ്റെ വേര് കളഞ്ഞിട്ട് അതിൻ്റെ തണ്ട് മാത്രം വേറെ ഒരു പാത്രത്തിൽ നട്ടിട്ട് ഇത് മണ്ണിന് നല്ല ചാണകപൊടിയെല്ലാം ഇട്ടിട്ട് അത് കരിയെല്ലാം പൊടിച്ചിട്ടിട്ട് ചേരി അതിലോട്ടിട്ട് മണ്ണ് കുറേ ലൂസ് ആക്കണം ലൂസ് ആക്കിയിട്ട് അതിൽ നട്ടെങ്കിലേ അത് തേക്കും അല്ലാതെ നമ്മൾ ഇങ്ങനെ വെറും ഒരു പാറയിൽ ചെടി നട്ടെങ്കിൽ അത് തേക്ക ഒന്നുമില്ല അത് അതിന് വെയിലും താഴെ മണ്ണ് കട്ടിക്കാണെങ്കിൽ എത്ര വെള്ളം ഒഴിച്ചാലും ആ ചെടി അങ്ങനെ തന്നെ ഉണ്ടാവും അതിൽ പൂ പിടിക്കില്ല അത് വളരില്ല പിന്നെയും എല്ലാം വേണം ചെടി നല്ലതാണെങ്കിൽ അതിന് നല്ല ലൂസിലെ മണ്ണ് വേണം ചാണകപൊടി വേണം വെള്ളം ഒഴിക്കണം വെയിലാണെങ്കിലും കുടുതൽ കൊണ്ടെങ്കിൽ ചെടി നന്നായി വളരില്ല ചെടിക്കാണെങ്കിലും വെയിൽ കണക്കിൻ്റെ അപ്പോൾ നട്ട സമയത്ത് ഫസ്റ്റിനങ്ങനെ നല്ലവണ്ണം വെയിലൊന്നും കൊള്ളാൻ പാടില്ല കുറച്ച് വെയിൽ കൊണ്ടാൽ മതി പിന്നെ അത് പൂവാകുന്ന സമയത്താണ് അതിൽ മൂടിയിട്ടില്ലേ എല്ലാ സാധനവും മാറ്റിയിട്ട് നല്ല വെയിൽ കൊള്ളുന്നത് പോലെ ഉള്ള സ്ഥലത്ത് വയ്ക്കുക അപ്പോൾ നല്ല വെയിൽ കൊള്ളും വെയിലും വെള്ളവും നന്നായിട്ട് അതുപോലെ ഈട്ടും ചാണകപ്പൊടിയും മറ്റേ നമ്മൾ പീടികയിൽ നിന്നെല്ലാം വാങ്ങുന്ന വളപ്പൊടി അതെന്തെങ്കിലും വാങ്ങിയിട്ട് ഇട്ടാൽ നല്ല റോസ് ആവും നല്ല മുല്ലപ്പൂ പിടിക്കും അതുപോലെ ചെമ്പരത്തി ചെമ്പരത്തിയിലാണെങ്കിൽ പെട്ടെന്ന് പുതു വരും അതിൻ്റെ ഇലയിലാണ് പുതു പെട്ടെന്ന് കയറുന്നത് അപ്പം ചെമ്പരത്തി നട്ട സ്ഥലത്ത് വേറെ ഏതും ചെടി നടാൻ പാടില്ല നട്ടെങ്കിൽ ഈ ചെമ്പരത്തിയിൽ ഉള്ള പൂ പുതു വേറെ ചെടിക്ക് കയറും അതുകൊണ്ട് ചെമ്പരത്തി നടുമ്പോൾ ചെമ്പരത്തി മാത്രം നടണം അത് അതിൻ്റെ ഇലയിൽ പെട്ടെന്ന് പൂ പുതു ഉണ്ടാവും ആ പുതുനെ മരുന്നടിക്കണം പുതുലേക്ക് അല്ലെങ്കി ഇല തന്നെ മുറിച്ച് മാറ്റണം പുതു മാത്രം എടുത്തിട്ട് കളഞ്ഞാൽ അതിൻ്റെ പുതുൻ്റെ മുട്ട ഉണ്ടാകും പിന്നെ വീണ്ടും അത് പുതുവാകും അപ്പോൾ ചെടി മൊത്തം പുതു കൂടുകെട്ടും അതുകൊണ്ട് ഒരു ഇലയിൽ പുതു കൂട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചെടിയുടെ പകുതിയിൽനിന്ന് മുറിച്ചിട്ടുതന്നെ മാറ്റണം അല്ലാതെ കൊണ്ട് പുതു മാത്രമെടുത്ത് കളഞ്ഞാൽ ചെമ്പരത്തിയിൽ പിന്നെ വീണ്ടും വീണ്ടും ഇല കെട്ടുന്നതുപോലെ അതിൽ പുതു കൂട് കെട്ടികൊണ്ടേ നിൽക്കും ചെമ്പരത്തിയിൽ കൂടുതൽ പുതു കൂട് കെട്ടുന്നത് റോസിലൊന്നും പുതു ഉണ്ടാവില്ല റോസ് ആണെങ്കിലും മുള്ള് തൈയ്യല്ലേ അപ്പം അതിൽ അങ്ങനെ പുതുവൊന്നും ഉണ്ടാവുന്നില്ല മുള്ളാണെങ്കിലും അതിൽ അങ്ങനെയൊന്നുമില്ല പിന്നെ കുറേ ഗാർഡൻ അത് കുറേ ഇലയുള്ള ചെടിയാണെങ്കിൽ അതിലെല്ലാം പെട്ടെന്ന് പുതു കയറും അങ്ങനെയാണ്